കേരളത്തിന് കേരളത്തിൽ ഇപ്പം മതപരമായ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് സാങ്കേതിക വിദ്യ വളരെ ഉപകാരമായി വരികയാണ് ഉപകാരമായിട്ട് വരികയാണ് ഇപ്പോൾ എന്തെങ്കിലും ചടങ്ങുകളോ ഒക്കെ ഉണ്ടെങ്കിലും ലൈവ് ആയിട്ട് ടെലിക്കാസ്റ്റ് ചെയ്യുകയും ആളുകളെ കാണിക്കുവാൻ എളുപ്പമാക്കുകയും ഒക്കെ ചെയ്യുകയാണ് അതോടു കൂടി അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പുകൾ തുടങ്ങുകയും അതുകൊണ്ട് അപ്പം ആൾക്ക് ആൾക്കാർ വീട്ടിൽ ഒന്നൂടെ മിണ്ടുവാനും ഒന്നൂടെ അതിനെ പറ്റി ചർച്ച ചെയ്യുവാനും യോഗങ്ങൾ കൂടുവാനും ഒക്കെ ഒക്കെ സഹായിക്കുകയാണ് അതുപോലെ തന്നെ ആപ്പുകളും അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പുകളും ഒക്കെയും ഇത് സഹായമായി വരികയാണ് പ അതുപോലെ തന്നെ ആളുകൾ പരസ്പരം സംസാരിക്കുകയും ഇത് വളരെ നല്ലതായി വരികയാണ് ഇത് ഇത് കാരണം സാങ്കേതിക നവീകരണങ്ങൾ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് കൊണ്ട് സാങ്കേതികം എന്ന ഉപകരണം ഉണ്ടാകുന്നതു കൊണ്ട് ആളുകൾക്ക് മതപരമായ കാരണം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഒരുമിച്ചു ഏർപ്പെടുന്നത് എളുപ്പമാക്കി കൊടുക്കുകയാണ് ഇപ്പം വാട്സപ്പ് പോലെയുള്ള പല സോഷ്യൽ മീഡിയ ആപ്പുകളിലും ഇവർക്ക് ഒരു ഗ്രൂപ്പ് തുടങ്ങുകയോ അല്ലെങ്കിൽ പേജ് തുടങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് അന്നന്നുള്ള സന്ദേശങ്ങൾ അറിയിക്കുകയും അവരെ അവർക്ക് ദൂരത്തേക്ക് സഞ്ചരിക്കുക അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി സമയം വേറെ ആകാതെ അവർക്ക് അവരുടെ അവർക്ക് അതിനെ ഒരു സമയം മാറ്റി വയ്ക്കുവാനുള്ള അവസരം കൊടുക്കുക ഇപ്പം വീട്ടു ജോലിയോ ഉള്ളവർക്കും അങ്ങനെ ഉള്ളവർക്കും ഒക്കെ ചില ചടങ്ങുകൾക്കും ഇപ്പം കല്യാണങ്ങളാണെങ്കിലും ഒക്കെയും സംബന്ധിക്കാൻ കഴിയാതെ വരികയാണെങ്കില് ലൈവ് ടെലികാസ്റ്റിങ്ങും ഇതും ഒക്കെയും വളരെ സഹായമായി വരികയാണ് അത് കാണുകയും അത് വീട്ടിൽ ഇരുന്നു കൊണ്ട് കാണുകയും അതിൽ ഏർപ്പെടുകയും അതിന് കമെൻ്റുകൾ ഇടുകയും ആശംസകൾ അറിയിക്കുകയും ഒക്കെയും ചെയ്തു അതിൽ ഭാഗമാകുവാൻ അവർക്ക് സാധ്യമാണ് അതുപോലെ അതുപോലെ ഇത് പുറം പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഒക്കെ ഇള്ളവർക്ക് വളരെ ഉപകാരപ്രദം ആവുക ഇപ്പം ഗൾഫിലും അതുപോലെ തന്നെ വേറെ പാശ്ചാത്യ സംസ്കാരങ്ങളുള്ള രാജ്യങ്ങളിലും അവർക്ക് ഒരു മതപരമായ സ്ഥലത്ത് ഏർപ്പെടാൻ പറ്റുക എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അവർക്ക് മൊബൈൽ ഫോണുകളുടെ സഹായത്താൽ അവരുടെ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഇതിനെ ഇത് കാണുകയും ഇതിനെ ഇതിൽ ഏർപ്പെടുകയും ഒക്കെയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അവരുടെ ഒരു അവരുടെ അവർക്ക് കൂടുതൽ സമയം ഇതിന് വേണ്ടിയിട്ട് മാറ്റിവയ്ക്കാൻ സഹായിക്കുകയാണ് അവർക്കുള്ള സമയം നല്ലതായി വിനിയോഗിച്ചു അതിൽ കൂടുതൽ സമയം നിക്ഷേപിക്കുവാൻ അവർക്ക് പറ്റുന്നതാണ് കൂടുതൽ സമയം അതിൽ ഇടാൻ അവർക്ക് പറ്റുന്നതാണ് ഇങ്ങനെത്തെ സാന്തിക് ഇങ്ങനത്തെ സാങ്കേതിക നവീകരണങ്ങൾ ഒരു വളരെ നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് ആചാരങ്ങളിലും സംസ്കാരങ്ങളിലും ഒക്കെ ഇതിനെ ഫോട്ടോകൾ എടുക്കുന്നതിനോടു കൂടെയൊക്കെ ഇതിനെ സൂക്ഷിക്കുകയും ഇത് ഭാവികാലങ്ങളിൽ ഭാവി തലമുറയ്ക്ക് ഒക്കെയും കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്നതാണ് ഇതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് അവരുടെ പഴയ സംസ്കാരവും ഒക്കെയും അവർക്ക് കണ്ടുപിടിക്കുവാനും അതിൽ ഏർപ്പെടുവാനും അത് കൃത്യമായി ചെയ്യുവാനും ഒക്കെയും അവരെ സഹായിക്കുകയാണ് അപ്പം ഗൂഗിളും ആ കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഗൂഗിളിൽ ഇവരെ പോയി നോക്കുകയാണെങ്കിൽ ഇവർ ഇവരുടെ ചരിത്രം എന്താണെന്നും ഇവർക്ക് ഇവർ എങ്ങനെ വന്നുവെന്നും ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവരുടെ ഇവരുടെ ഐഡിയോളജിയും ഒക്കെ എന്താണെന്നൊക്കെ അവർക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ പ്രായമായവർക്കും ഒക്കെയും വളരെ ഉപയോഗപ്രദമാണ് അവർക്ക് വെളിയിൽ ഇറങ്ങി പോവാനോ യോഗങ്ങളിൽ സംബന്ധിക്കുവാൻ കഴിയാത്തത് ഒക്കെ വരുമ്പോൾ അവർക്ക് വീട്ടിൽ ഇരുന്ന് കൊണ്ട് തന്നെ മൊബൈൽ ഫോണുകളുടെ സഹായത്താൽ ആൾക്കാരെ ആൾക്കാരോട് സംസാരിക്കുവാനും ഇതിൽ ഏർപ്പെടുവാനും ചടങ്ങുകളിൽ ഏർപ്പെടുവാനും ഒക്കെയും കഴിയുന്നതാണ് ഇപ്പം പ്രായവായവര്ക്ക് ഒന്നും കല്യാണത്തിനും ഒന്നും പോവാൻ പറ്റത്തില്ലല്ലോ അപ്പം അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് കൊണ്ട് തന്നെ ഫോണിൽ ലൈവ് ലൈവ് ആയിട്ട് ഇരുന്ന് കാണുമ്പോൾ തല്സമയം ദൃശ്യങ്ങൾ കാണുകയോ ഒക്കെ ചെയ്യാം അതിൽ അതിൽ അവരെ മനസ്സാലെയും കാഴ്ചയാലെയും അതിൽ ഏർപ്പെടുവാനും ആശംസകൾ അറിയിക്കുവാനും എല്ലാം സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല ഒരു മുതൽക്കൂട്ടാണ് മുതൽക്കൂട്ടാണ്